ആദ്യമായി നീന്തൽ പഠിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളുടെ സാന്നിദ്ധ്യത്തിൽ മാത്രം നീന്താനായിട്ട് വെള്ളത്തിലിറങ്ങുക അല്ലാതെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യമായിട്ടു പഠിച്ച എന്തെങ്കിലും അപകടമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ രക്ഷിക്കാനോ ഒന്നും സാധ്യമല്ല പിന്നെ രണ്ടാമത്തൊരു കാര്യം ആദ്യമായിട്ടു പഠിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യം എന്നു പറഞ്ഞ കൂടുതലായി ഉള്ള ഒരു ആത്മവിശ്വാസമുണ്ടായിട്ട് കൂടുതൽ വെള്ളത്തിൻ്റെ ഒഴുക്കോ കാര്യങ്ങളോ അവിടുത്തെ ആഴവും ഒന്നും മനസ്സിലാക്കാതെ ഒരു സാഹസികമായ ഒരു കാര്യത്തിലേക്ക് അടങ്ങുകയെന്നുള്ളൊരു തെറ്റ് മിക്ക നീന്തലിൻ്റെ തുടക്കക്കാരിൽ കാണാറുള്ള ഒരു അവസ്ഥയാണ് വെള്ളത്തിനോടുള്ള പേടി മാറണമെങ്കിൽ നമുക്ക് വെള്ളത്തിലിറങ്ങുകയെന്നുള്ളതാണ് അതായതിപ്പോൾ നല്ല ഉചിതമായ ആളിനെ കണ്ടെത്തി അവരുടെ സാന്നിധ്യത്തിൽ വെള്ളത്തിലിറങ്ങി അതു നീന്തി അല്ലെങ്കിലാണ് വെള്ളത്തിലോട്ടു പതുക്കെ പതുക്കെ വേണ്ട നമുക്ക് വേണ്ട എന്നാൽ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ട് വെള്ളത്തിലിറങ്ങി നീന്തി നീന്തി നീന്തി പഠിക്കുകയെന്നുള്ളതാണ് പേടി മാറ്റാനുള്ള സാഹചര്യം അപ്പോൾ ഇപ്പം ആദ്യം വെള്ളത്തിലിറങ്ങുക കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കുക പിന്നെ ശ്വാസം പിടിച്ചു കൊണ്ട് മുങ്ങാൻ പഠിക്കുക അതൊക്കെ ആദ്യത്തെ സ്റ്റെപ്പുകളാണ് മുങ്ങാൻ പഠിച്ചതിനു ശേഷം പിന്നെ ആരുടെയെങ്കിലും കൂടി നീന്തുക ലൈഫ് ജാക്കറ്റുപയോഗിക്കുക അല്ലെ എന്തെങ്കിലും സപ്പോർട്ടോടു കൂടി നീന്തുക ഇതൊക്കെയാണ് നമ്മൾ നീന്തൽ പഠിക്കാനായിട്ടു ചെയ്യേണ്ട കാര്യം അപ്പം അതിനു വെള്ളം വെള്ളത്തിനോടുള്ള പേടി മറണമെങ്കിൽ വെള്ളത്തിലിറങ്ങുക തന്നെ വേണം വെള്ളത്തിലിറങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരാൾ നമ്മൾക്കെപ്പോഴും വെള്ളത്തിൽ നല്ല പരിചയമുള്ള ഒരാൾ നമ്മൾക്കെന്തെങ്കിലും അപകടം വെച്ചു കഴിഞ്ഞാൽ നമ്മളെ അവിടെ നിന്നാൽ രക്ഷപ്പെടാനായിട്ട് കഴിവുള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ മാത്രം വെള്ളത്തിൽ ഇറങ്ങുകയെന്നുള്ളതാണ് നമ്മളേറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം